ട്രെയിൻ ഒരു നല്ല വാഹനമാണ് മറ്റുള്ള വാഹനത്തെ അപേക്ഷിച്ചു നല്ല നീളവും നല്ല വീതിയും ഒക്കെയുണ്ട് എല്ലാവർക്കും സഞ്ചരിക്കാൻ പറ്റിയതാണ് ട്രെയിനിന് നല്ല ശബ്ദമുണ്ട് ആ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ നല്ല എഞ്ചിനുകളാണ് നല്ല സീറ്റുകളാണ് സെക്കൻഡ് ക്ലാസ് ആണ് എല്ലാവരും യാത്ര ചെയ്യുന്ന കൂടുതൽ നമുക്ക് നിൽക്കാം ഇരിക്കാം കുറേ സൗകര്യങ്ങളുണ്ട് പിന്നെ എ സി കമ്പാർട്ട്മെൻറ്റുകൾ അതിൽ എസിയൊക്കെ ഉണ്ടാവും നല്ലതാണ് ആ പിന്നെ നല്ല ചക്രങ്ങളാണ് നല്ല സുഖ സൗകര്യങ്ങളാണ് ബാത്റൂമൊക്കെ ഉണ്ടാകും പിന്നെ ടിടിആറെക്കെ ഇടക്കിടയ്ക്ക് വരും ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യും എല്ലാ കൂടുതൽ യാത്രക്കാരും സെക്കൻഡ് ക്ലാസ് ആണ് ഉപയോഗിക്കാറുള്ളത് ഫസ്സ് ക്ലാസ്സൊക്കെ ഉണ്ട് കൂടുതലും സെക്കൻഡ് ക്ലാസ്സാണ് ഉപയോഗിക്കാറുള്ളത് ട്രെയിൻ നമുക്ക് പെട്ടന്ന് എല്ലാം നമുക്ക് എവിടെയാണ് എത്തേണ്ടത് ഏത് സ്ഥലത്ത് നമുക്ക് എത്താം നല്ല വേഗത കൂടിയതാണ് മറ്റുള്ള വാഹനങ്ങൾക്ക് അപേക്ഷിച്ചു നല്ല ഒരു വാഹനമാണ് എല്ലാവർക്കും പോകാൻ പറ്റിയതാണ് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരുവട്ടമെങ്കിലും ട്രെയിന് പോയിരിക്കണം എല്ലാവരും